പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ചില പ്രാദേശിക മാധ്യമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഹിന്ദു മാതൃഭൂമി തുടങ്ങിയ പത്രങ്ങളും ഏഷ്യാനെറ്റ് മനോരമ അങ്ങനെ പറഞ്ഞ ന്യൂസ് ചാനലുകളാണ് ഈ ശ്രോതസ്സുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് കുറെ അറിവുകൾ നേടാൻ കഴിയുന്നുണ്ട് കാരണം ജില്ലയിൽ നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും അതുപോലെത്തെ അറിവുകളും വാർത്തകളും ഒക്കെ ഈ ന്യൂസ് ചാനലും പത്രങ്ങളിൽ നിന്നും നമുക്ക് സമൂഹത്തിന് കിട്ടുന്നുണ്ട് പത്രങ്ങൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിയിപ്പിക്കാനും അറിയാനും പിന്നെ അവിടെ ബന്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട് കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ രീതിയിൽ നമുക്ക് കുറെ പേർക്ക് ഈ ചായക്കടയിലൊക്കെ ന്യൂസ് പേപ്പർ കൊടുക്കുമ്പോൾ അത് മറ്റ് ആൾക്കാർക്ക് കൊടുത്ത് ഷെയർ ചെയ്തിട്ടും അതൊക്കെ ഭയങ്കര ഉപയോഗം തരുന്ന സംഭവമാണ് അതേപോലെത്തന്നെ ന്യൂസ് ചാനലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടി വി ഇട്ടിട്ട് അതിൻ്റെ ന്യൂസ് ചാനൽ കാണുമ്പോൾ അത് ബന്ധിപ്പിക്കുന്നത് ആൾക്കാർക്ക് ആൾക്കാരെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പ്രാദേശിക പത്രങ്ങൾ തന്നെയാണ് ഈ മാതൃഭൂമി ദീപിക ദേശാഭിമാനി അങ്ങനത്തെ പത്രങ്ങളൊക്കെ പ്രാദേശിക വാർത്തകളെക്കുറിച്ച് വിവരം ഞങ്ങൾക്ക് നല്ലവണം ഇത് ഈ പത്രങ്ങളിൽ നിന്ന് ലഭിക്കാറുണ്ട് ഇനിയും അവര് വാർത്തകൾക്ക് ലഭിക്കാൻ സാധിക്കട്ടെ മാധ്യമങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്തെന്ന് വച്ചാൽ ചെറിയ കാര്യങ്ങളും അവര് ഉൾക്കൊള്ളണം അതേപോലെത്തന്നെ വലിയ കാര്യങ്ങളും ഉൾക്കൊള്ളണം അല്ലാതെ ഏത് നേരം വലിയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് അവര് ന്യൂസ് ചാനൽ വെക്കുകയും ചെയ്യരുത് ചെറിയ കാര്യങ്ങളിലും കൂടി അവര് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട് ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്നത് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവരെ കുറേ വിവരങ്ങളും വാർത്തകളിൽ നിന്നും ഇവര് കാര്യമായെടുക്കാതെ തന്നെ ഈ മന്ത്രിമാരുടേയും വലിയ വലിയ ആൾക്കാരുടെ മാത്രം വാർത്തകൾ മുന്നിൽ കണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തള്ളി നീക്കുകയും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവര് മറന്ന് പോകുന്നുണ്ട് ഇപ്പോൾ പത്രങ്ങളും മാധ്യമങ്ങളും ആ കാര്യങ്ങൾ കുറച്ച് കൂടി ശ്രദ്ധിച്ച് വച്ചാൽ നമ്മുടെ ജില്ലയിലുള്ള ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ സാധിക്കും